ആ അതെ ഇത് ആരാ പറഞ്ഞത് അതെ അതെ ആ പറഞ്ഞോളൂ ആണോ എന്തു പറ്റി അതെയോ നമുക്ക് നാളെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ഇവിടെ സ്കൂളിൽ വച്ച് ഈ പിള്ളേരുടെ കാര്യങ്ങൾ ഇപ്പോഴേ എങ്ങനെയാണ് ചെയ്യേണ്ടേന്ന് ഒക്കെ ഒരു അവേർനസ് കൊടുക്കുന്ന ഒരു ക്ലാസ്സ് ഉണ്ടായിരുന്നു പുറത്തുന്ന് ഒരു ആൾ വന്ന് എടുക്കുന്നത് ആ പറഞ്ഞില്ലയോ ആണോ ആ ആ ആ വയ്യാഞ്ഞോണ്ട് ആയിരിക്കും പറയാഞ്ഞത് ആ ഹാ ഹാ ആ ആ ഹോസ്പിറ്റലിൽ പോയോ

ആ ആ എന്തായാലും ഒന്ന് നോക്കിയേര്

ആ പഠിക്കുന്നുണ്ട് നന്നായി പഠിക്കുന്നുണ്ട് ആ അതെ അതെ മിടുക്കൻ ആ എല്ലാത്തിലും പങ്കെടുക്കുന്നുണ്ട് വലിയ കുരുത്തക്കേട് ഒന്നും ഇല്ല നന്നായി പോവാണ് വലിയ വലിയ കുഴപ്പം ഇല്ലാതെ പോവുന്നുണ്ട് പിന്നെ വീട്ടിലൊന്നും കൂടെ ശ്രദ്ധിച്ചാൽ മതി

ആ സാദാ കുരുത്തക്കേടുകളൊക്കെ ഉള്ളൂ ഇല്ല ഇല്ല അങ്ങനത്തെ ഒരു സ്വഭാവവും ഇല്ല പിന്നെ പഠിക്കുന്നുണ്ട് വീട്ടിൽ ഒന്നൂടെ ശ്രദ്ധിച്ചാൽ മതി ആ ആ ആ എന്നാലും ആ ശ്രദ്ധിച്ച് ഒന്നൂടെ ശ്രദ്ധിച്ചാൽ മതി കുഴപ്പം ഒന്നും ഇല്ല ആള് മിടുക്കനാണ് ആ ശരി എന്നാൽ